സഹോദരാ നമുക്ക് ഉൽഘാടനത്തിന് മുൻപേ അവിടെ എത്താൻ സാധിക്കുമോ ഇപ്പോൾ നഗരത്തിലത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ആണ് അനുഭവപ്പെടുന്നത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇപ്പോൾ വിളിച്ചിരുന്നു അവനവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഓ അത് ശരി ഇനിയിപ്പോൾ അവിടെയെത്താൻ ഒരുപാട് താമസിക്കുമോ മുപ്പത് മിനിറ്റ് കുറച്ച് കൂടുതൽ സമയമല്ലേ നമ്മുടെ മുമ്പിലിപ്പോൾ അത്രയും സമയം ഉണ്ടോ തൽക്കാലം നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ ഇതിലും മുൻപേ അവിടേക്ക് എത്താൻ കഴിയുമോ

അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി പോയാലോ പത്ത് മിനിറ്റ് എങ്കിലും നേരത്തെ എത്തുമല്ലോ എന്നാ ശരി സഹോദരാ നമുക്ക് ആ വഴി പോയി നോക്കാം